നെയ്ത്ത് നെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ ഒരു സുഹൃത്തു തന്നെ ഒരു വെഡിങ് ബ്ലൗ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി കൊണ്ടു തന്നപ്പോഴേക്കും

അപ്പോൾ അത് കുറേ സമയമെടുത്താണ് നമ്മളത് ചെയ്തത് കുറേ സീക്ക്വൻസ് വെയ്ക്കുകയും അതിൻ്റെ കട്ടിങ്ങും പാറ്റേണുമെല്ലാം ഡിഫറെൻറ്റായിരുന്നു അപ്പം അതെല്ലാം ചെയ്തു ഒരുപാട് സമയം നമ്മളതിനുവേണ്ടി മെനക്കെട്ടായിരുന്നു അതു ചെയ്യാൻ വേണ്ടി എന്നാലും നമുക്കിഷ്ടമുള്ള ഒരു പണിയാകുമ്പോൾ നമ്മളതുപോലെ കണ്ട് ആസ്വദിച്ചു തന്നെയാണ് അതെല്ലാം ചെയ്ത് സീക്ക്വൻസ് വെക്കണമെങ്കിൽ കുറേ സമയമെടുക്കുമായിരുന്നു ഓരോ സീക്ക്വൻസും നമ്മൾ ആ സൂചി കൊണ്ടെടുത്ത് അത് ഓരോ രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയെല്ലാം ചെയ്തു ആ ദിവസത്തിൻ്റെ തലേദിവസമാണ് മേടിക്കാൻ വേണ്ടി വന്നത് മേടിക്കാൻ വന്ന് ആൾ ഇട്ടു നോക്കിയപ്പോഴേക്കും ആൾ വിചാരിച്ച രീതിയിലല്ലായിരുന്നു നമ്മളാ സീക്ക്വൻസ് ചെയ്തത് അപ്പം പെട്ടെന്ന് പുള്ളിക്കാരത്തിക്കങ്ങ് ഭയങ്കര ഒരു വിഷമം വന്നു നമുക്കതുപോലെ തന്നെ ആ സമയം പെട്ടെന്ന് ഒരു ഇതായി പോയി കാരണം പറഞ്ഞു തന്നതും കേട്ടതിൻ്റെ കുഴപ്പമായിരുന്നോ അറിയില്ല സീക്ക്വൻസ് വെച്ചത് മാറി പോയായിരുന്നു അപ്പോഴേക്കും പുള്ളിക്കാരിത്തി പെട്ടെന്ന് അന്നാ കുഴപ്പം ഇല്ല ഇത് ഇടാമെന്നുള്ള രീതി പറഞ്ഞെങ്കിൽ പോലും നമ്മളത് സാരം ഇല്ല നമ്മളത് ചെയ്തു തരാം നാളെ രാവിലത്തേക്ക് റെഡിയാക്കി തരാം എന്നു പറഞ്ഞ് സാധനം മേടിച്ചു കാരണം ഒരു ഇഷ്ടമില്ലാതെ നമ്മളത് കൊടുക്കേണ്ടല്ലോ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽത്തന്നെ ആക്കിത്തരാം എന്നു പറഞ്ഞ് നമ്മളാ സാധനം മേടിച്ചു വെച്ച് പക്ഷേ സമയം തീരെ കുറവായിരുന്നു നമ്മൾ കുറെ ദിവസങ്ങൾ കൊണ്ടു ചെയ്തു തീർത്തൊരു വർക്കായിരുന്നു ഇത് എന്നാൽപ്പോലും നമ്മളത് മേടിച്ചു വെച്ചു എന്നിട്ട് അന്ന് ഇരുന്ന് അതിൻ്റെ സൈഡെല്ലാം അഴിച്ചു മാറ്റി അതുപോലെ തന്നെ സീക്ക്വൻസെല്ലാം ഓരോന്നായിട്ട് അഴിച്ചുമാറ്റി അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറഞ്ഞ ആ മോഡലിൽത്തന്നെ നമ്മൾ കുറച്ചു കഷ്ടപ്പെട്ടാണെങ്കിലും അത് ചെയ്തു ഒരുപാട് രാത്രി ഒരുപാട് സമയമെടുത്തെങ്കിൽ പോലും അത് അവരുടെ ആ ഇഷ്ടം അനുസരിച്ച് പറഞ്ഞ രീതിക്കു തന്നെ നമ്മളത് ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചു അത് പിറ്റേ പിറ്റേദിവസം രാവിലെ ആയപ്പോഴേക്കും അവർ വന്ന് ഇട്ടു നോക്കിയപ്പോഴേക്കും ഒരുപാട് സന്തോഷമുണ്ടെന്നു പറഞ്ഞു അവർ മനസ്സിൽ വിചാരിച്ച ഡിസൈൻ തന്നെയാണ് നമ്മൾ പിന്നീട് ചെയ്തുകൊടുത്തത് അപ്പം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാൽ പോലും അത് മനസ്സിൻ്റെ സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു അത് ഒത്തിരി സന്തോഷമുണ്ട് അവരുടെ ഇഷ്ടമനുസരിച്ചു നമുക്കത് ചെയ്തുകൊടുക്കുകയും ചെയ്തു